ഇരുപത്തഞ്ച് ഒന്ന് രണ്ടായിരത്തി നാല് രണ്ട് മൂന്ന് രണ്ടായിരത്തി ആറ് പതിനെട്ട് ഒന്ന് രണ്ടായിരത്തി അഞ്ച് പത്ത് നാല് രണ്ടായിരത്തി പത്ത് പന്ത്രണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന്